എനിക്ക് മറ്റുള്ളവരെ നൃത്തം പഠിപ്പിക്കാനവസരം ലഭിച്ചിട്ടുണ്ട് ചെറിയ കാലം തൊട്ടേ ഞാൻ വളരെയധികം നൃത്തത്തിൽ പ്രാഗത്ഭ്യം ഉള്ള ഒരാളായിരുന്നു അതു കൊണ്ടു തന്നെ ചെറുപ്പം മുതൽക്കെത്തന്നെ എനിക്ക് ബാക്കി ഉള്ളവരെ നൃത്തം ചെയ്യാൻ പഠിപ്പിക്കുന്നതിനും എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനാദ്യമായി ഒരാളെ നൃത്തം പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ കുറച്ചാൾക്കാരെ നൃത്തം പഠിപ്പിക്കുന്നത് മൂന്നാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് മൂന്നാം ക്ലാസ്സിൽ വെച്ച് ഒരു സംഘ നൃത്തത്തിൻ്റെ സമയത്ത് എൻ്റെ ക്ലാസ് അദ്ധ്യാപിക എന്നോട് ബാക്കി കുട്ടികളെ എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി ഒരു ഡാൻസ് കളിക്കണമെന്നും അതിൻ്റെ കോഡിനേറ്ററായി എന്നെ തിരഞ്ഞെടുത്തൂ എന്നും പറഞ്ഞിരുന്നു അന്നേരം ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് എന്നെ കൊണ്ട് നടക്കില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പിന്നീടെനിക്കു മനസ്സിലായി എനിക്ക് എന്നെ കൊണ്ടു നന്നായിട്ട് ആളുകളെ കൈകാര്യം ചെയ്യുവാനും അതുപോലെതന്നെ നല്ല രീതിയിൽ നൃത്തങ്ങൾ പഠിപ്പിക്കാനും എന്നെ കൊണ്ടു കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി ആതാണ് എൻ്റെ ആദ്യത്തെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ അവസരമെന്നു വേണം തന്നെ പറയാൻ അതുപോലെതന്നെ പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ എല്ലാ വർഷവും തന്നെ എനിക്ക് ഓരോ ആൾക്കാരെ നൃത്തം പഠിപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ഉദാഹരണത്തിനിപ്പം എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചിയുടെ കുട്ടിയെ തന്നെ എനിക്ക് നൃത്തം പഠിപ്പിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്